ഓട്ടോ പേ എന്നു പറയുമ്പോള് ഞാന് അങ്ങന എന്തുവാണ് ഒരു ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ ഒന്നും ഫുഡ് മേടിക്കാറില്ല കഴിവതും ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കഴിക്കാറുള്ളത് അഥവാ ഇനി മേടിക്കേണ്ട അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടോ പേ ഓഫ് ചെയ്തിട്ട് ഓഹ് ക്യാഷ് ഓണ് ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷന് ഉണ്ടാകും അത് ക്യാഷ് ഓണ് ഡെലിവറി ആക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആ പ്രൊഡക്ട് കിട്ടി അതിന് ശേഷം ഇവിടെ ഡെലിവറി ബോയ് വരുമ്പം അവരുടെ കയ്യിൽ പൈസ കൊടുത്താൽ മതി ആ അങ്ങനെ ഓട്ടോ പേയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ക്യാഷ് ഓണ് ഡെലിവറി ആക്കി നമുക്ക് ഡെലിവറി ബോയ്ക്ക് വീട്ടിൽ വരുമ്പം തന്നെ പ്രോഡക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീട്ടീൽ നിന്നുതന്നെ ഈ പ്രൊഡക്ടിന്റെ പൈസ കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ പ്രൊഡക്ട് കഴിക്കുകയും ചെയ്യാം അല്ലാതെ ഞാന് അങ്ങനെ ആപ്പിൽനിന്ന് ഒന്നും ഫുഡ് മേടിച്ചിട്ടില്ല ഇതുവരെയായിട്ടും ഇനി മേടിക്കേണ്ടി വരികയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്